ഹലോ ആ മ്മ് വിളിച്ചതെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ധ്യാനകേന്ദ്രങ്ങളെ പറ്റി അറിയാനായിട്ടായിരുന്നു അപ്പം മ്മ് മ്മ് എവിടെയൊക്കെയാണ് ഈ ധ്യാനകേന്ദ്രങ്ങളുള്ളത്

ആ ആ

അവിടെ എത്ര ദിവസം എത്ര ദിവസമാണവിടെ ഏഴ് ദിവസം എനിക്ക് നാല് ദിവസം മൂന്ന് ദിവസം അത്രയും ദിവസത്തേക്കുള്ള ധ്യാനം മതി അപ്പോൾ അത് വേറെ എവിടെയാണ് ഉള്ളത് ആ ഈ കുന്നന്താനം നമ്മുടെ ജില്ലയിലാണോ ഉള്ളത് കോട്ടയം ജില്ല ആണോ ഓ അവിടെ എങ്ങനെയാണ് നമുക്ക് പോയി നിൽക്കുമ്പം നിൽക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ മ്മ് ആ പിന്നെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തെ പറ്റി കേട്ടിട്ടുണ്ട് അവിടെ എങ്ങനെ ഉണ്ട് അവിടെ നമുക്ക് ഇങ്ങനെ നിൽക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ ഈ ചെറുപ്പക്കാര്ക്ക് പ്രത്യേക തരമായിട്ടുള്ള ധ്യാനം വല്ലതും ഉണ്ടോ

എല്ലാ മാസവും ഉണ്ടോ ആ ആ അപ്പം ആ പറഞ്ഞ് ഇത്രയും പറഞ്ഞ് തന്നതിന് ആ ഇനി ആ ആ ശരി ഞാൻ അന്വേഷിച്ച് പോയിക്കൊള്ളാം